അപ്പോൾ നമ്മള് കൂടുതലായിട്ടും വേനൽക്കാലത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ നടണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെയൊക്ക നമ്മൾ തരണം ചെയ്തിട്ടാണ് കൂടുതലായിട്ടും ചെടിയും കാര്യങ്ങളൊക്കെ നടുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ പല രീതീലുള്ള ചെടികള് ഇപ്പോൾ നമുക്ക് റോസയൊക്കെ വേനൽക്കാലത്തു നടാൻ പറ്റിയൊരു ചെടിയാണ് കാരണം അതിന് വലിയ രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മള് സാധാരണ എങ്ങനെയാണോ നനച്ചു കൊടുക്കുന്നത് അതേപോലെത്തന്നെ നനച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഡാലിയ ആണെങ്കിലും അതേപോലെ തന്നെയാണ് പക്ഷെ ഡാലിയ കൂടുതലായിട്ടും ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് പല രീതിയിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഡാലിയയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളതിൻ്റെ കിഴങ്ങാണ് കൂടുതലായിട്ടും വെച്ച് കൊടുക്കണത് അപ്പോൾ അത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിൽനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചകൊണ്ട് ചിലപ്പോൾ അത് കിളിർത്തു വരാനും അതൊക്കെ ചാൻസുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയില് പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാവും അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുറേ കുറേ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയില് ആ സമയത്തൊക്കെ ചെയ്ത് വരാം